ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് ബാങ്ക് ലോൺ സുഗമമായി ലഭിക്കണമെങ്കില് നമ്മള് വേറെ എവിടുന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടടക്കണം അടവുകൾ ആ മുടക്കാതെ നമ്മള് കറക്ട് ആയിട്ട് അടയ്ക്കുവാണെങ്കില് നമുക്ക് എവിടെ പോയാലും സിബിൽ സ്കോർ ഓക്കെ ആയിരിക്കും അത്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലോൺ ലോണ് പാസ്സാകും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നമ്മള് ലോൺ എടുക്കുകയാണെങ്കിൽ കറക്ട് ആയിട്ടുള്ള തിരിച്ചടവ് നടത്തേണ്ടതുണ്ട് നാഷണലൈസ്ഡ് ബാങ്ക് പോലെ തന്നെയാണ് മറ്റേത് തരത്തിലുള്ള എൻ ബി എഫ് സിയിൽ നിന്ന് ലോൺ എടുത്താലും കറക്ട് ആയിട്ട് അടവ് നടത്തണം അല്ലെങ്കിൽ നമ്മളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കുകയും ഡ്യൂസിനൊക്കെ കാരണമാവുകയു ചെയ്യും ലോണുകൾ ഏഹ് ഇന്ന് പല തരത്തിലുള്ള ലോണുകൾ ഉണ്ടെങ്കിലും മിക്ക മിക്ക ബാങ്കുകളിലും ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്കൾക്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ വ്യത്യസ്തമാണ്